ഞാനെങ്ങനെയാണ് എൻറ്റെ പൂന്തോട്ടം പരിപാലിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യമൊന്നും എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റൊന്നുമുണ്ടായിരുന്നില്ല കാരണം ആദ്യം ഞങ്ങളുടേതൊരു ചെറിയൊരു വീടായിരുന്നു അപ്പോള് അതെന്തായാലും പൊളിക്കുമെന്നൊരു കണ്ടീഷനായതുകൊണ്ട് നമ്മളിപ്പോള് കുറേ ചെടിയൊന്നും വെച്ചുപിടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പിന്നെയത് നമുക്ക് അതായത് പൂവെല്ലാം വന്നുകഴിയുമ്പോഴായിരിക്കും ചിലപ്പോള് ജെ സി ബി ഒക്കെ വന്നിട്ട് കോരി എടുത്തുകൊണ്ടുപോവുക അപ്പോള് എന്തുചെയ്തു പിന്നെ രണ്ടാമത് വീടൊക്കെ കെട്ടി വീടുപണിയെല്ലാം കഴിഞ്ഞപ്പോള് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളീ പൂച്ചെടിയുടെ പരിപാടി തുടങ്ങിയത് അപ്പോഴും വലിയൊരു ഇൻട്രസ്റ്റൊന്നുമുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു ഫീൽഡ് വർക്കുണ്ടായിരുന്നു വീടൊക്കെയായതില്പ്പിന്നെ ഒരു ഫീൽഡ് വർക്കുണ്ടായിരുന്നു അപ്പോള് പല വീട്ടിലും പല ചെടികളും കാണുമ്പോള് ഞാനോരോ കൊമ്പോരോ കൊമ്പുകൊണ്ട് നടും അങ്ങനെയാണ് അതായത് ഒന്ന് നട്ടിട്ട് നമുക്ക് അതിൽ പൂവൊക്കെ വിരിഞ്ഞ് കാണുമ്പോള് അതായതത് ഉഷാറായി വരുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് വരിക അങ്ങനെ എല്ലാ വീട്ടിലും പോകുമ്പോഴും വെറൈറ്റി ചെടികള് കാണുമ്പോള് എല്ലാം ഓരോന്ന് പറിച്ചുകൊണ്ടുവരും പിന്നെ അതുമല്ല ടൗണിലൊക്കെ ഇരുപത് രൂപയ്ക്ക് റോസാച്ചെടിയെന്ന് പറഞ്ഞിട്ട് വേരോടെയുള്ളതുണ്ടാകും അത് മേടിച്ചുകൊണ്ട് വരും അതൊക്കെ പെട്ടെന്ന് പിടിക്കും കേട്ടോ നല്ല അത്യാവശ്യം നല്ല റോസാച്ചെടികളൊക്കെ അങ്ങനെയാണ് ഞാൻ പൂന്തോട്ട പരിപാലനമെന്നുവെച്ചാല് ഞാനങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്